നൃത്തം എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ട് രീതിയിൽ നിൽക്കുന്നതിന് അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ഉള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്നാത്തെ കാര്യം എന്നു പറഞ്ഞാൽ ഡാൻസ് അല്ലെങ്കിൽ നൃത്തം നമ്മൾ അഭ്യസിക്കുന്നതുവഴി നമുക്കൊരു എന്നാ ഒരു എക്സൈസാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മുടെ ശരീരം ശരീരം എന്തിനോടും ഇണങ്ങുന്ന രീതിയിൽ ഒരു വഴക്കം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് അതൊരു കാര്യമാണ് പിന്നെ അതുപോലെതന്നെ നമ്മുടെ ഈ ഡാൻസ് ഈ ഡാൻസിങ്ങ് ചെയ്യുന്നതോടൊപ്പം ഒരു എക്സൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ എക്സർസൈസ് ചെയ്യുമ്പം നമുക്ക് ശരീരത്തിന് ആരോഗ്യമാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു നൃത്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വഴി അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതുവഴി നമുക്ക് എന്താണ് ഒരു നല്ലൊരു എനർജി കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് എൻ്റെ സ്വന്തമായ അഭിപ്രായം എന്നു പറയുന്നത് പിന്നെ

നൃത്തം നമ്മൾ പഠിക്കുകയും അത് മറ്റുള്ള നമുക്ക് കിട്ടിയൊരറിവാണത് ആ അറിവിനെ അല്ലെങ്കിൽ നമ്മുടെ ആ കഴിവിനെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ദൈവാനുഗ്രഹമായിട്ട് മാറുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആ കഴിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നു അത് നമ്മുടെ ജീവിത്തിൽ ഉള്ളൊരു ഈ നൃത്തം അഭ്യസിച്ചതുകൊണ്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ നൃത്തം പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ള കാര്യം എന്നു പറഞ്ഞാൽ നല്ല നമുക്ക് എപ്പോഴും എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും ഈ നൃത്തം ചെയ്യുന്നവർക്കല്ലാം അപ്പോൾ അവർക്ക് അവർക്ക് അവരുടെ മുഖം എപ്പോഴും പ്ലസൻ്റായിരിക്കും പിന്നെ നമ്മുടെ പെരുമാറ്റത്തിലും നടപ്പിലം കാര്യങ്ങളിലും എല്ലാം നമുക്ക് ഒരു ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു എന്താണ് ശാന്തമായിട്ടും നോർമ്മലായിട്ടും നല്ലയൊരു നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ അതിനാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നൃത്തം മാത്രമായിട്ട് ജീവിതം മാറ്റിവച്ച ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞതുപോലെ അത്രയുംതന്നെ നമുക്കായില്ലെങ്കിൽപ്പോലുംകൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം ഈ നൃത്തം ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെതന്നെ നൃത്തം പഠിക്കുന്നത് വഴി അല്ലെങ്കിൽ അതുവഴി നമുക്ക് പല വേദികളിൽ പല വേദികളിൽ പല സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ കഴിവിനെ കാണിക്കാനായിട്ട് പറ്റും അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്